എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത ശൈലി സെമി ക്ലാസിക്കലാണ് സെമി ക്ലാസിക്കൽ തന്നെ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളാണ് എനിക്കേറ്റവും കൂടുതലിഷ്ടം കാരണം എന്തുകൊണ്റ്റാണെന്നു വെച്ചാൽ എനിക്ക് ശബ്ദം തന്നത് എന്റെ ദൈവമാണ് അപ്പം എന്റെ പാട്ടുകളിലൂടെ ദൈവത്തെ മഹത്ത്വപ്പെടുത്തുകയെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം പാട്ടുപാടുമ്പോൾ ഞാൻ കൂടുതലും പാടാറ് ഭക്തിഗാനങ്ങളാണ് ഓരോ തവണ പാടുമ്പോഴും എനിക്ക് ശബ്ദം തന്ന ദൈവത്തെ മഹത്ത്വപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്റെ പാട്ടിലൂടെ മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കാനായിട്ടെനിക്ക് സാധിക്കുന്നുവെന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഓരോ ഓരോ ഗായി ഗായകർക്കും അവരവരുടേതായ ശൈലികളുണ്ടാകും ഓരോരുത്തർക്കും അവരവരുടേതായ സംഗീത ഇനങ്ങളുമുണ്ടാകും ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ കർണ്ണാടിക് ഗസൽ വെസ്റ്റേൺ ഫ്യൂഷൻ അങ്ങനെ പല തരത്തിലുള്ള സംഗീതയിനങ്ങളുണ്ട് ഓരോരുത്തരും അവരവരുടെ ശബ്ദത്തിനനുസരിച്ചാണ് സംഗീതയിനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്റെ ശബ്ദത്തിന് കുറച്ചും കൂടി യോജിക്കുമെന്നെനിക്കു തോന്നുന്നത് സെമീ ക്ലാസ്സിക്കലാണ് എനിക്കേറ്റവും ഇഷ്ടം സെമി ക്ലാസ്സിക്കലിനൊപ്പം ഗസലും പാടാനിഷ്ടമാണ് എനിക്ക് ഗസലിനൊരു ഹിന്ദി ഭാഷയുടെയൊരു ചെറിയ ഇൻഫ്ലുവൻസ് ഗസലിനുള്ളതുകൊണ്ട് ഗസൽ കേൾക്കുമ്പം കുറച്ചും കൂടിയൊരു സന്തോഷമാണ് അപ്പം സെമീ ക്ലാസ്സിക്കലും ഗസലുവാണെനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം മറ്റു സംഗീത ശൈലികളുമിഷ്ടമാണെങ്കിലും കൂടുതലിഷ്ടം സെമീ ക്ലാസ്സിക്കലും ഗസലുമാണ് എനിക്ക് ഏറ്റവുമിഷ്ടപ്പെട്ട പാട്ടുകാരി കെ എസ് ചിത്രാമേമാണ് കെ എസ് ചിത്രയുടെ സംഗീതം കേൾക്കുമ്പത്തന്നെ പാട്ടുപാടുന്നവർക്ക് എല്ലാവർക്കും അവർക്ക് സംഗീതത്തോടുള്ള ആ ഒരു സ്നേഹവും അവർക്ക് സംഗീതത്തോടുള്ള ആ ഒരു അവരുടെ ആ ഒരു ജീവിതം കൊണ്ടവർ സംഗീതത്തിന് മാറ്റിവെച്ചു എന്നു തന്നെയവരുടെ പാട്ടുകേൾക്കുമ്പം നമുക്ക് മനസ്സിലാകും അപ്പം അവരിൽ നിന്നൊക്കെ മാതൃക ഉൾക്കൊണ്ട് ഞാൻ എന്റെ സംഗീതയിനം തിരഞ്ഞെടുക്കുകയും കൂടുതൽ സംഗീതത്തിൽ വളരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു